ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപത് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ആറ് ഏഴ് രണ്ടായിരം